ഞാൻ എപ്പോഴും വായിക്കുന്ന ഒരാൾ അല്ല പക്ഷേ ഞാൻ വായന ഇഷ്ടപ്പെടുന്ന ഒരാൾ ആണ് അതുകൊണ്ട് തന്നെ ആ ഒരുപാട് കളക്ഷൻസ് ഓഫ് ബുക്ക്സ് എനിക്ക് ഇല്ല ഞാൻ ഇപ്പം വായിച്ചിട്ടെന്തിച്ചിപ്പൊ ആട് ജീവിതം എന്ന് പറയുന്ന ബുക്ക് വളരെ അധികം നല്ല ഒരു ബുക്കായിരുന്നു നമുക്ക് ഏതൊരു എന്താണ് മനുഷ്യനേയും നമ്മളെ കരയിപ്പിക്കുന്ന ഒരു വക്കിലേക്കെത്തിക്കുന്ന ഒരു ബുക്കാണ് പിന്നീട് എൻ്റെ ഓർമ്മയിൽ ഉള്ളത് ഒരു കുടയും കുഞ്ഞു പെങ്ങളും ആണ് ഇത് പോലെ തന്നെ വളരെ അധികം എന്താണ് പറയുക നമ്മളെ വായനക്കാരനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വായനക്കാർക്ക് ഒരു വിഷമം മനസ്സിൽ കൊടുക്കുന്ന ഒരു ബുക്കാണ് പിന്നെ ഞാൻ പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ബുക്ക്സാണ് ഞാൻ വായിച്ചിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വായിച്ച് കഴിഞ്ഞത് ഒരു വൺ ഇന്ത്യൻ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് ചേതൻ ഭഗത്തിൻ്റെ ബുക്കാണ് ആ ബുക്ക് വളരെ നല്ല ഒരു ബുക്കായിരുന്നു എനിക്ക് വളരെ ഇൻട്രെസ്റ്റിങ്ങ് ആയിട്ട് ഞാൻ വായിച്ച് കൊണ്ടിരുന്ന ഒരു ബുക്കായിരുന്നു അത് ഞാൻ അധികം ടൈം എടുത്തു ഒരു ഹാഫ് മന്ത് കുറച്ച് ഓൾ റെഡി വർക്കിങ് ആയത് കൊണ്ട് നമുക്ക് എപ്പോഴും വായിക്കാൻ സമയം കിട്ടില്ല അപ്പം അത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലഗ് എടുത്താണെങ്കിൽ പോലും പക്ഷേ ഞാൻ ഒരു ടെൻ പേജസ് ഒക്കെ ഒരു വൺ ഡേ തന്നെ തീർക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു കാരണം എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിങ്ങ് ആയിട്ട് ഞാൻ എനിക്ക് നെക്സ്റ്റ് എന്താണ് എന്നറിയണം എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ഇപ്പോൾ ഇനി റീസെൻ്റ്ലി ഞാൻ വായിക്കാൻ പോകുന്ന ഒരു ബുക്കെന്ന് പറയുന്നത് ഹാഫ് ടു ഗേൾ ഫ്രണ്ട്സ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ബുക്കാണ് ആ ബുക്ക് ഞാൻ ഇതുവരെ ഞാൻ ഇതാണ് ഞാൻ അത് അത് വായിക്കാനുള്ള ഒരു മൊമൻ്റെ് എത്തിയിട്ടില്ല ഞാൻ ഒരുപാട് നാളായി വാങ്ങിച്ച് വച്ചിട്ട് പക്ഷേ അത് വായിക്കണം വായിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല